വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്നത് നമ്മുടെ ജീവിത ശൈലി തന്നെയാണെന്ന് പറയാം എല്ലാ ദിവസവും വീട് വൃത് വൃത്തിയാക്കി വെയ്ക്കേണ്ട ആവശ്യകത പ്രധാനമാണ് പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ അസുഖങ്ങളൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് തൂത്തുവാരുക എന്ന് പറയുമ്പോൾ നല്ല വൃത്തിയായി തൂത്തുവാരണം തൊടയ് വീടിൻ്റെ നിലം എല്ലാ ദിവസവും തുടയ്ക്കണമെന്ന് നിർബന്ധമില്ല കാരണം എല്ലാ ദിവസവും തുടയ്ക്കുന്നത് തറയ്ക്ക് കേടുപാട് സംഭവിക്കാൻ കാരണമാകുന്നു എന്ന് പറയപ്പെടുന്നു പക്ഷെ തൂത്തുവാരുന്നത് എല്ലാ ദിവസവും വേണമെന്ന് നിർബന്ധമാണ് എൻ്റെ വീട്ടിലൊക്കെ എല്ലാ ദിവസവും ചെയ്യാറുണ്ട് പിന്നെ ചാണകത്തറ ഈ ഒരു കാലഘട്ടത്തിൽ ചാണകത്തറ ഇല്ലെന്ന് തന്നെ നമുക്ക് പറയാം എന്നു വെച്ച് പണ്ട് കാലഘട്ടങ്ങളിൽ എല്ലാം എല്ലാ വീടുകളിലും ചാണകത്തറ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അതിൻ്റെ പ്രധാന കാരണം അന്നത്തെ സാമ്പത്തികം തന്നെയാണെന്ന് നമുക്ക് പറയാം അല്ലാതെ ചാണകം തറയിൽ മെഴുകുന്നത് കൊണ്ട് പല ചെറിയ ചെറിയ തരത്തിലുള്ള സൂക്ഷ്മ ജീവികളൊക്കെ നാശത്തിന് കാരണമാകുന്നുണ്ട് അത് നമുക്കെല്ലാവർക്കും അറിയാല്ലോ